നെയ്ത്തിനും തുന്നലിനും സമയം കണ്ടെത്തുന്നത് പണിക്കടയിൽത്തന്നെയാണ് കാരണം വീട്ടുപണിക്കിടയിൽത്തന്നെയാണ് തുന്നലിനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നത് അതിന് പ്രത്യേകിച്ച് വിദ്യകളൊന്നുമില്ല അടുക്കളപ്പണി ചെയ്യുന്നതിനോടൊപ്പംതന്നെ അത്യാവശ്യം നമ്മുടെ തുന്നൽപ്പണികളും നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അതിനൊക്കെയായിട്ട് പ്രത്യേകം സമയം കണ്ടെത്തി നമ്മളിരിക്കാറില്ല അതിനോടുള്ള താൽപര്യംകൊണ്ട് ദിനചര്യമായിട്ട് എന്നും ചെയ്യുന്ന ഒരു ജോലിപോലെ തന്നെ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ തുന്നൽപ്പണികളും ചെയ്യുന്നത് ആത്രയധികം തുന്നലിനെ നമ്മൾ സ്നേഹിക്കുന്നു തുന്നലുമായി